മറ്റ് പട്ടണങ്ങളിലെ സ്കൂളിനെ അപേക്ഷിച്ചു ഞങ്ങളുടെ സ്കൂൾ പ്രത്യേകിച്ച് വിത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേരളത്തിലെല്ലാ സ്കൂളും ഒരേപോലെയാണെന്നാണ് എന്റെ അഭിപ്രായം എല്ലാ സ്കൂൾളും ഒരേപോലെയെന്ന് പറയാന് കാരണം ഞാന് കുറെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് എല്ലാ സ്കൂളിലും നല്ലതുമുണ്ട് മോശവുമുണ്ട് പക്ഷേ കൂടുതല് നല്ല കാര്യങ്ങളാണ് മോശമെന്ന് പറയാന് അധികം കാര്യങ്ങളൊന്നുമില്ല അല്ലറച്ചില്ലറ കാര്യങ്ങള് മാത്രം മോശമെന്ന് പറയാനുള്ളൂ പക്ഷേ കേരളത്തിൽ രണ്ട്തരം സ്കൂളുകളുണ്ട് സെന്ട്രല് ഗെവണ്മെൻനെ ഉണ്ട് സ്റ്റേറ്റ് ഗവണ്മെന്റിന്റെയുമുണ്ട് ഇത് രണ്ടും ത് അത് അതിന്റെതായ മോശവും ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് എനിയ്ക്ക് പറയാനുള്ളത് എനിക്കൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല പക്ഷേ എല്ലാവര്ക്കും അതേപോലെ തോണണം എന്ന് ഞാന് പറയുന്നുവില്ല പിന്നെ ഞങ്ങളുടെ സ്കൂളില് നല്ല കാര്യങ്ങളെന്തെന്ന് പറഞ്ഞാൽ വൃത്തിയും വെടിപ്പും ഉണ്ടായിരുന്നു അധ്യാപകരും നം പിള്ളേരും ആയിട്ട് നല്ല കമ്പനിയായിരുന്നു പിന്നെ ടീച്ചര്മാര് നമ്മളെല്ലാ കാര്യത്തിനു സഹായിക്കാനും വരും പിന്നെ വൃത്തിയും വെടിപ്പും നന്നായിട്ടുണ്ടായിരുന്നു ഉച്ചഭക്ഷണവുമുണ്ട് പിന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കനായ് ആന്റിമാരുണ്ടാവും പിന്നെ നമ്മളെ വിളിച്ചാല് വിളിപ്പുറത്തെത്തുന്ന ആള്ക്കാര് കൂട്ടുകാരുമുണ്ടാവും അവരെപ്പോഴും നമ്മളുടെ ഒപ്പം ഉണ്ടാകും എന്നൊരു ധൈര്യം നമുക്കെപ്പഴുമുണ്ട് നമ്മളുടെ എല്ലാ കാര്യത്തിനും അവര് സഹായിക്കാനും വരും ഉണ്ടാക്കാനും വരും പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളവരായിട്ട് കമ്പനി അടിച്ച് പോവും പിന്നെ മറ്റ് പട്ടണങ്ങളും കേരളത്തില് വിത്യാസമുണ്ടന്ന് പറയാന് പറ്റില്ല കാരണം കേരളത്തിലെല്ലാ സ്കൂളും ഒരേപോലെയാണന്നാണ് എന്റെ ഒരഭിപ്രായം